ഏ നന്ദു ഏട്ടാ എന്താണ് നിങ്ങളവിടെ പുതിയ കള്ള് ഷാപ്പ് തുടങ്ങിയിട്ട് നമ്മളെ വിളിക്കാഞ്ഞത് അയ്യേ നിങ്ങൾ നല്ല ആൾ കേട്ടോ അവിടെ നല്ല മീൻ കറി കിട്ടുണൂന്ന് പറയുണൂ നമ്മുടെ അവിടെയൊക്കെ കിട്ടുന്ന നിങ്ങൾ വന്നു ആ ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ ആണെന്ന് പറയുണു അവിടെ നമ്മളിതൊക്കെ അറിയണത് നിങ്ങളവിടെയായിട്ട് നമ്മളെ ഒന്ന് വിളിക്കുക പോലുമില്ല ഒരു കാര്യവും പറയണ്ടാ കേട്ടോ അവിടെ എല്ലാം ഉണ്ട് എന്നു പറയണൂ മീനുണ്ട് പിന്നെ മുയൽ താറാവ് എല്ലാ ഐറ്റവും ഉണ്ട് അല്ലെ അവിടെ

ആ ആ ആ ആ ആ ആ ആ ആ അതെയല്ലേ പിന്നെ മറ്റെ അവിടെ മറ്റെ കപ്പയും പിന്നെ വേറെ കഴിക്കാനായിട്ടെന്താ ഉളളത് കറികളല്ലാണ്ട് മറ്റെ പൊറോട്ടയൊക്കെയുണ്ടോ പൊറോട്ട ചപ്പാത്തിയൊക്കെ ഉണ്ടോ ഇഡ്ഡ്ലിയൊക്കെ ഉണ്ട് സെറ്റപ്പാണല്ലോ അപ്പോൾ വെറുതെയല്ല ആൾക്കാർ പറയണത് അല്ലേ സെറ്റപ്പാണ് പറയണത് അതെ വേറെ ആ നിങ്ങളപ്പോൾ അവിടെ തന്നെയാണ് ഫുൾ ടൈം അല്ലേ മൂന്ന് നേരം അവിടെ നിന്നുതന്നെ കഴിക്കണത് നല്ല സുഖം മനുഷ്യ ഇങ്ങനെതന്നെ വേണം കേട്ടോ നിങ്ങളിപ്പോൾ എന്തായാലും കള്ളു കുടിക്കാൻ അങ്ങോട്ട് പോവില്ല തിന്നാൻ മാത്രമായിട്ട് പൊക്കോടെ വീട്ടിലമ്മയ്ക്ക് സുഗമായി പിന്നെ മറ്റെ അവിടെ ഇപ്പോൾ കപ്പയും കറിയുമല്ലാണ്ട് വേറെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്താ കഴിക്കാൻ ഉണ്ടാവുക അവിടുത്തെ കള്ളെങ്ങനെയാണ് പിള്ളേർ എന്തു പറഞ്ഞു ഓ പനങ്കളളാണോ തെങ്ങിൻ കള്ളാണോ

പുതിയ ഐറ്റം ഉണ്ട് എന്തായാലും ശരി ശരി ഞാനിന്ന് ഇപ്പോൾ അങ്ങോട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ ആ ശരി ശരി ശരി ശരി ശരി